കുട്ടികളെ നല്ല രീതിയിൽ വളർത്തണമെങ്കിൽ ഇന്നത്തെ കാലത്ത് വാർത്തയുടെ പ്രാധാന്യം വളരെ വലുതാണ് അതിൽ ചെറുപ്പം മുതലേ നമ്മൾ ഓരോ ചെറിയ ചെറിയ വാർത്തകൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പത്രത്തിലുള്ളത് വായിച്ച് ഓരോ ഹെഡിങ്ങുകൾ ചെറിയ പ്രായത്തിൽ ഹെഡിങ്ങ് തലക്കെട്ടുകൾ വായിച്ച് മനസ്സിലാക്കി കൊടുക്കുക ചെറുപ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ വാർത്തയുടെ പ്രാധാന്യം നിത്യ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോരുത്തരുടെയും കാര്യങ്ങൾ ലോകമെമ്പാടുമുള്ള കാര്യങ്ങൾ ലോകത്തിന് ഇത്രയും വലിപ്പം ഉണ്ടെന്ന് ഉള്ളത് എല്ലാം കുട്ടികളിൽ വളരുക വളർത്തുവാനുള്ള വലിയൊരു പങ്ക് വാർത്താ മാധ്യമങ്ങൾക്കുണ്ട് ഇത് ഈ ടി വി ടി വിയിലാണെങ്കിലും വാർത്തകൾ കുറച്ച് ഇന്നത്തെ ഏത് മാധ്യമങ്ങളിൽക്കൂടിയുള്ള വാർത്തകളാണെങ്കിലും കുറച്ച് സമയങ്ങളിൽ കുട്ടികളെ എന്നും കാണ കാണിച്ചു പ്രോത്സാഹിപ്പിക്കണം അങ്ങനെ കാണുന്നതിന് അത് കുട്ടികളുടെ ഭാവി ജീവിതത്തിന് വളരെ ഉപകാരപ്രദമാകും കൂടുതൽ അറിവും അറിവിലും ബുദ്ധിയിലും വളരുവാനുള്ള ഒരു പിള്ള കുട്ടികളുടെ കഴിവ് കൂട്ടുവാനും നമുക്ക് സാധിക്കും അതു വഴി

അത് ചീത്ത കു ചീത്ത സ്വഭാവം ചീത്ത വാർത്തകളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും കുട്ടികളുടെ മനസ്സിൽ വളർത്തുവാനുള്ള ഒരു നല്ലൊരു മാധ്യമമാണ് നമുക്ക് വാർത്ത് വാർത്ത വാർത്ത വായിക്കുന്നത് അതിലുള്ള മറ്റുള്ളവരുടെ ദുഖങ്ങളും എല്ലാം കുട്ടികൾ കണ്ട് മനസ്സിലാക്കുമ്പോൾ ആ ഒരു വഴിവിട്ട ബന്ധങ്ങളിലേക്കൊന്നും പോകരുതെന്നുള്ള ചിന്ത കുട്ടികളുടെ മനസ്സിൽ വളരുവാൻ ഏറ്റവും നല്ല ഒരുപാധിയായിട്ട് വാർത്താ മാധ്യമം നമുക്ക് കാണാം അങ്ങനെ കുട്ടികൾക്ക് എല്ലാ ദിവസവും നമ്മൾ കൂടെ ഇരുന്ന് വാർത്തകൾ കാണാൻ കുട്ടികൾക്ക് വാർത്തകൾ കാണുന്നതിനോടുള്ള ഒരു ഒരു താല്പര്യം കുട്ടികളിൽ ജനിക്കുന്നതാണ് എല്ലാ ദിവസവും ഒരു കുറച്ച് സമയം വാർത്തകൾ കാണണം നമുക്ക് നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ പഠിത്തത്തോടൊപ്പം തന്നെ നമ്മൾ വാർത്തകൾ വായിച്ച് ഓരോ ദിവസവും പോ കൊണ്ടു പോകേണ്ടതാണ് അങ്ങനെ സമൂഹത്തിൽ വാർത്തകളിലൂടെ നമ്മൾ നല്ല കാര്യങ്ങൾ നല്ലതായി മോശമായ കാര്യങ്ങൾ മോശമാണെന്നുള്ളതും തിരിച്ചറിവിലേക്ക് ആരെങ്കിലും മുതിർന്നവർ കൂടി ഇരുന്ന് കുട്ടികളിൽ വാർത്തകൾ കാണിക്കുവാൻ സഹായിക്കണം കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നതു പോലെ തന്നെ വാർത്തകൾക്കും അതിനുള്ള പങ്കുണ്ട് ഒരുപാട് അറിവുകൾ കിട്ടുന്നത് ഒരു വാർത്തയിലൂടെയാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും എല്ലാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും വാർത്ത എല്ലാ ദിവസത്തിനും നമ്മുടെ ലോ നമ്മുടെ രാജ്യമേതാണെന്നും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടും കേട്ടും അറിയുമ്പോൾ കുട്ടികളുടെ മനസ്സിലത് ഒരു ചിത്രമായി തന്നെ രൂപപ്പെടും നമ്മളെത്ര പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുന്നതിനേക്കാളും ഈ ലോകത്തെക്കുറിച്ചുള്ള വാർത്തകളല്ലെ ബിസിനസ്സ് വാർത്തകൾ ഓരോ ദേശീയ വാർത്തകൾ അന്തർദേശീയം ഇതെല്ലാം നമ്മളോരോന്നും പറഞ്ഞു പറഞ്ഞ് കൊടുക്കുമ്പോൾ കൊച്ചിന് കൂടുതലറിവുകൾ നമുക്ക് കുട്ടികളുടെ ഉള്ളിൽ വളരുവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അങ്ങനെ അവരുടെ ഭാവിയിൽ ന്ന് നമ്മുടെ ഏതൊരു മേഖലയിലാണെങ്കിലും രാഷ്ട്രീയം അതു പോലെ തന്നെ നമ്മുടെ സഭകൾ അതു പോലെ ഏത് എല്ലാ മതങ്ങളെക്കുറിച്ചുള്ളൊരു അവബോധം ഇതെല്ലാം നമുക്കെങ്ങും പോയി ലോകമെമ്പാടും പോയി നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അതിന് നമുക്ക് വാർത്തകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതു കൊണ്ട് അത് വാർത്തയുടെ താല്പര്യം അവർ വളർത്തുവാൻ കുട്ടിക്കാലം മുതലേ വാർത്ത കുറച്ച് സമയം മെയിൻ വാർത്തയുള്ള സമയങ്ങളിൽ ടി വിയിലാണെങ്കിലും ഒരര മണിക്കൂർ കേൾപ്പിക്കണം അതു കാണണം അതു കൂടെ ഇരുന്നു കാണിച്ചത് പറഞ്ഞു കൊടുക്കണം മനസ്സിലാകാത്ത കാര്യങ്ങൾ അതു പോലെ തന്നെ വാർത്തകൾ പത്രത്തിൽ വായിക്കാൻ മലയാള ഭാഷ ഭാഷേനെക്കുറിച്ച് കൂടുതൽ അറിയാൻ എല്ലാം സഹായിക്കും അതു കൊണ്ട് എന്നു പറഞ്ഞു മനസ്സിലാക്കി കുട്ടികളെ വായിച്ച് മനസ്സിലാക്കണം ഓൺലൈനിലാണെങ്കിൽ ഇന്നത്തെ കാലത്ത് എല്ലാ വീടുകളിലും ഓൺലൈൻ മാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമമായ എന്നു വെച്ചാൽ മൊബൈൽ അല്ല കമ്പ്യൂട്ടർ എല്ലാമുണ്ട് അതിനകത്ത് കുറച്ച് സമയം കൊടുക്കുമ്പം പിള്ളേർക്കീ ഒരു ഇത് കാണണമെന്നുള്ള ഇഷ്ടം കുട്ടികളുടെ മനസ്സിൽ കാണും വാർത്ത എങ്കിലും കാണാം അതു കൊണ്ട് ടി വി മൊബൈലൊക്കെ കാണാമല്ലോ വാർത്ത കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ കാണിക്കരുത് നമ്മൾ ഏറ്റവും കൂടുതൽ ആളും പിന്നെ വീട്ടുകളിൽ ഒത്തിരിമാനം

നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ വാർത്തകൾ വായിക്കുകയാണെ തന്നെ കുട്ടികളത് കുറച്ചെങ്കിലും ഇൻവോൾവാകും എന്തെങ്കിലും പത്രത്തിലാണെങ്കിലും വാർത്ത വായിച്ച് എന്തെങ്കിലും കൗതുകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞ് കുഞ്ഞ് കുട്ടികളൊക്കെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ പിള്ളേരത് കാണാൻ വേണ്ടി പിറ്റേ ദിവസവും അതുപോലെയെന്തെങ്കിലും വാർത്തകളുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് പത്രം തുറന്നു നോക്കും അങ്ങനെ പത്രത്തിൽ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് മനസ്സിലാക്കുവാനും പടങ്ങളിലൂടെ ചിത്രങ്ങളിലൂടെയൊക്കെ നമുക്ക് എല്ലാം മനസ്സിലാക്കുവാനും എല്ലാം സാധിക്കും